അതെ ഇത് ഹാപ്പി വെഡിങ് സെൻ്ററാണ് ഇതാരാണ് സംസാരിക്കുന്നത് ആ ശരി ഓക്കേ നിങ്ങള് കല്യാണം ഏത് ഏതു തീയതിയാണ് വരുന്നത് അടുത്തമാസം പതിനാറല്ലേ ഓക്കേ ഇതെങ്ങനെയാണ് പരിപാടി ഒറ്റ ദിവസത്തെ പരിപാടിയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെയെന്തെങ്കിലുമുണ്ടോ ഓക്കേ ഈ മൂന്ന് ദിവസത്തെയെന്ന് പറയുമ്പോൾ മൂന്ന് ദിവസമെന്നുവെച്ചാൽ പാർട്ടിയുടെ ആ അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും കളറോ അങ്ങനെത്തെയെന്തെങ്കിലും ഇതുണ്ടോ ഓക്കേ പർപ്പിൾ കളറ് അങ്ങനെയാണെങ്കിൽ നമ്മള് പർപ്പിൾ കളറുകൊണ്ട് ഒരു ഡെക്കറേഷൻ ചെയ്യാം പൂവും ലൈറ്റും എല്ലാം പർപ്പിൾ കളർ പർപ്പിൾ മാത്രം മതിയോ അല്ലെങ്കിൽ വേറെയേതെങ്കിലും നിറം നിങ്ങൾക്ക് വേണോ ഓക്കേ ശരി അങ്ങനെയാണെങ്കില് പർപ്പിളും വെള്ളയും കറുപ്പും കളറുകൊണ്ട് നമുക്ക് പൂവും ലൈറ്റും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കില് നിങ്ങൾക്ക് പൂവ് പ്ലാസ്റ്റിക്ക് മതിയോ അല്ലെങ്കില് വേറെ ശരിയായ പൂവ് വേണോ ആ ശരി അങ്ങനെയാണെങ്കില് ഇത് ശരിയായ പൂവ് എന്ന് പറയുമ്പോൾ കുറച്ച് വില കൂടിയതാണ് ഇത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കേ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മള് പൂ കാശ്മീരിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് പിന്നെ വേറെന്തെങ്കിലും ഡീ ജെ പാർട്ടി അങ്ങനെന്തെങ്കിലും പാർട്ടി ടൈപ്പ് വയ്ക്കാൻ താല്പര്യമുണ്ടോ ഓക്കേ അങ്ങനെയാണെങ്കിൽ അതും കൂടെ സെറ്റ് ചെയുന്നതാണ് ഡീ ജെ പാർട്ടി പിന്നെ പൂവ് എല്ലാം സെറ്റാണ് ഇത് നിങ്ങള് കുടുംബക്കാർ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവരും കൂടി നടത്തുന്നതാണോ ഓക്കേ കുടുംബക്കാർ മാത്രമെ ഉള്ളൂ അല്ലേ അങ്ങനെയാണെങ്കില് കുടുംബക്കാർ മാത്രവും ഫുഡ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തു തരാം ബുഫെ നമ്മളുടെ ഇതിൽ വരുന്നത് ഓക്കേ അല്ലെ അത് ആ ഓക്കേ അപ്പോൾ ഒന്നാമത്തെ ദിവസം ഓക്കെ ഈ രണ്ടാമത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ അങ്ങനത്തെയെന്തെങ്കിലും ഇതുണ്ടോ ആ ശരി ചുവപ്പും മഞ്ഞയും കൂടിയിട്ടുള്ളത് ഓക്കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുവപ്പും മഞ്ഞയും കൊണ്ട് ഫ്ലവർസും ലൈറ്റുമെല്ലാം ഡെക്കറേറ്റ് ചെയുന്നതാണ് വേറെ രണ്ടാമത്തെ ദിവസം വേറെ എന്തെങ്കിലും പരിപാടി അങ്ങനെയെന്തെങ്കിലും പുതുതായിട്ട് ഏന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ ഓക്കേ അങ്ങനെയാണെങ്കിൽ മംഗല്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഓക്കേ പിന്നെ മൂന്നാമത്തെ ദിവസമെന്ന് പറയുന്നത് ഓക്കേ ബീച്ച്സൈഡ് അപ്പോൾ ബീച്ച് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി റേറ്റ് കൂടും ബീച്ച്സൈഡാണ് അങ്ങനെയാകുമ്പോൾ കുറച്ച് വില കൂടും നിങ്ങൾക്കത് പ്രശ്നമുണ്ടോ ആ അങ്ങനെയാണെങ്കിൽ നമ്മള് ബീച്ച് സൈഡ് നമ്മളൊരു സെറ്റുണ്ട് അതുവെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ആ ഈ ബീച്ച് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ട് അത് നമ്മൾക്ക് ഈ ഫോണിലൂടെ സംസാരിച്ചാൽ പറ്റില്ല നമുക്കൊന്ന് നേരിട്ട് കണ്ടു സംസാരിച്ചു നമ്മളുടെ ഇതെല്ലാം കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതാവുമായിരുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടോ ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം അഞ്ചരയ്ക്ക് മി നേരിട്ട് കണ്ടു സംസാരിക്കാവുന്നതാണ് ഓക്കേ താങ്ക്യൂ വിളിച്ചന്വേ നന്ദി പറയുന്നു താങ്ക്യൂ